ആ കേരളത്തിലെ ഗൈഡ് ആയിരുന്നു ആരായിരുന്നു

ഇവിടുത്തെയോ ഇവിടെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രീതിയിലുള്ള ഫെസ്റ്റിവെൽസും ആഘോഷിക്കാറുണ്ട് മെയിനായിട്ട് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഓണം പിന്നെ വിഷു അങ്ങനത്തെയൊക്കെയാണ് മെയിനായിട്ട് ആഘോഷിക്കാറ് പിന്നെ അമ്പലങ്ങളിൽ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മേഡത്തിന് ഇപ്പോൾ എല്ലാ ഫെസ്റ്റിവെൽസും കാണണമെന്നുണ്ടോ ഓണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസം അനുസരിച്ച് ഇരിക്കും അതായത് സെപ്റ്റംബറ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഈ രണ്ട് മാസത്തിന് ഉള്ളിൽ ആണ് വരുന്നത് ഈ മാസത്തെ ഈ വർഷത്തെ കഴിഞ്ഞു ഓണം കഴിഞ്ഞു ഈ ഒരു കഴിഞ്ഞ മാസം ആയിരുന്നു ഓണം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞു ആ ഇനിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ പൂജാവെപ്പൊക്കെ ഇല്ലെ അതായത് ആ അതിൻ്റെ ആഘോഷങ്ങൾ ഉണ്ട് അതായത് അമ്പലങ്ങളിൽ ഒക്കെ നല്ല രീതിയിലുള്ള ഫെസ്റ്റിവെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പൂജ വെക്കുക അതായത് വണ്ടി വാഹന പൂജ പിന്ന ബുക്ക് പൂജ ആയുധ പൂജ അങ്ങനത്തെ പൂജകൾ ആ അങ്ങനത്തെ നമുക്ക് ആ അമ്പലങ്ങളിൽ ഒക്കെ ആ നല്ല രീതിയിലുള്ള ഇത് ആഘോഷിക്കാൻ വേണ്ടീട്ടുള്ള പറ്റുന്ന പിന്നേയെന്ന് പറഞ്ഞാൽ വിഷുവാ അടുത്തത് ആ വിഷു ഉണ്ട് പിന്നെ ദീപാവലി വിഷുവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ അല്ലേ ആ അതായത് രാവിലെ കണിയും കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെത്തന്നെ ഒരു അമ്പലം ഉണ്ട് അപ്പം അമ്പലത്തിൽ പോയിട്ട് നമ്മൾക്ക് രാവിലെ നാല് മണി ഒക്കെ ആവുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നാലര ആ ടൈമിൽ ഒക്കെ ആവുമ്പോഴത്തേക്കും കണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പടക്കം പൊട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ആ പിന്നേയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരമാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു ഉത്സവമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരമാണ് അത് കഴിഞ്ഞു ഈ വർഷത്തെ കഴിഞ്ഞ് ഇനി ഇപ്പം അടുത്ത വർഷമാണ് ഉണ്ടാവുകയുള്ളൂ അതെ നെക്സ്റ്റ് ഇയറെ ഉണ്ടാവുകയുള്ളൂ കാരണം എന്താണെന്നുവെച്ചാൽ ഇനി ഈ വർഷത്തെ കഴിഞ്ഞു ഒരു മെയ്യിൽ ആയിരുന്നു നമ്മുടെ തൃശ്ശൂർ പൂരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതാണ് ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവമെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരമാണ് അപ്പം കുറേ ആനകൾ കാര്യങ്ങളൊക്കെ കുടമാറ്റം അങ്ങനെ ഒക്കെ ഉണ്ടാവില്ലെ അതേപോലുള്ള പരിപാടികളായിരുന്നു അത് ആ മേഡത്തിന് ഏത് കാണാനാണ് താൽപ്പര്യം ഇപ്പോൾ ഓണം ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇയർ എന്തായാലും ആവും ആവശ്യം ഇല്ല ഉണ്ട് അല്ലെ അങ്ങനെ ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ വെരുമ്പം ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ ഇവിടെ എല്ലാം റെഡി ആക്കിത്തരാം അത് നിങ്ങൾക്ക് ഫുഡ്ഡ് താമസസൗകര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡി ആക്കിത്തരാം ഓക്കേ ഓക്കേ എന്നാൽ വിളിച്ചാൽ മതി കേട്ടോ